മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതല് നിത്യം ഉപയോഗ സാധനമായ നമ്മുടെ കുടിവെള്ളത്തിന്റെ ക്ഷാമാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നേതാക്കളിൽ നിന്ന് ഇലക്ഷൻ സമയങ്ങളില് അവര് വരുന്നു പല വാഗ്ദാനങ്ങളും തരുന്നു എന്നല്ലാതെ ഒരു പ്രയോജനവും ഞാന് ഇന്ന് വരെ ഒരു വീടുകളിലും കിട്ടുന്ന നിത്യം എന്ന ഏറ്റവും വായു ഭക്ഷണം വെള്ളം ആണല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പക്ഷേ ആ വെള്ളം മലപ്പുറം ജില്ലയില് കൂടുതലും സ്ഥലങ്ങളില് കുടിവെള്ളക്ഷാമമാണ് ഉള്ളത് ഇത് ഒരു വലിയ പൊതുവായ വലിയ വലിയ ആക്ടിനെയാണ് എല്ലാ വിധത്തിലും കുറിച്ച് കാണുന്നത് ഇത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ എത്രമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് നേതാക്കളില് നിന്ന് ഒരു ഇതിനെപ്പറ്റിയുള്ള സഹായങ്ങള് അവര് ചെയ്യാം ചെയ്യാം എന്ന് പറയുക എന്നല്ലാതെ ഒരു സഹായവും ചെയ്യുന്നില്ല ദിവസങ്ങളോളം കുളിക്കാതെ എത്ര നാലും അഞ്ചും ദിവസങ്ങള് പോലും കുളിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷന് ബാത്ത്റൂമില് പോവാന് പറ്റാത്ത ഒരവസ്ഥ തുണികള് അലക്കാന് പറ്റാത്ത ഒരവസ്ഥ കുടിവെള്ളത്തിന് നമ്മള് ക്ഷാമം പുറത്ത് നിന്ന് കടകളില് നിന്നും ഒക്കെ മിനറല് വാട്ടര് വാങ്ങണ്ട ഒരവസ്ഥ ഇതാണിപ്പോൾ ഏറ്റവും കൂടുതല് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം ഇലക്ഷൻ സമയങ്ങളില് ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് നേതാക്കന്മാര് വരുന്നു പക്ഷെ ഒന്നിനും ഒരു പ്രയോജനവും പിന്നീട് അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകാറില്ല